ചുവർ ചിത്രങ്ങൾ ചെയ്യുന്നതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാൽ ചിത്രങ്ങൾ പെട്ടെന്നു നാശമാകുകയും അവയ്ക്ക് കേടു കേടു വരുകയും ചെയ്യുന്നു ചെയ്തതിൻ്റെ കളർ മങ്ങുകയും അതിൻ്റെ ഭംഗി നഷ്ടമാകുകയും ചെയ്യുന്നു അതു മാത്രമല്ല ഇവ ഭംഗിയോടെ സംരക്ഷിക്കും സംരക്ഷിച്ചില്ലെങ്കിൽ ഇതു വളരെ പെട്ടെന്നു നാശം വരുകയും ചെയ്യും ചുവർ ചിത്രങ്ങൾ അമ്പലങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് അവ നല്ല ഭംഗിയോടെ സംരക്ഷിക്കുവാൻ അവിടെയേ ആകു അവിടെയാണ് ഉത്തമം ചുവർ ചിത്രങ്ങൾ കാണാൻ വളരെ ഭംഗിയാണ്